നമ്മള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാല് എന്ത് എടുത്ത് കഴിഞ്ഞാലും നമ്മള് പാത്രം വൃത്തിയായി കഴുകിവെക്കണം എന്നാലേ അടുത്ത പ്രാവശ്യത്തേക്ക് എടുക്കാൻ നമുക്ക് പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മള് നല്ല പാത്രം നല്ല വൃത്തിയായി കഴുകണമെങ്കിൽ നമ്മളുപയോഗിക്കുന്ന സോപ്പോ ലിക്വിഡോ അങ്ങനെയുള്ള സാധനങ്ങളുപയോഗിച്ച് വൃത്തിയായി പാത്രം കഴുകി വെക്കുക ഞാനുപയോഗിക്കുന്നത് സ്വന്തമായി ഉണ്ടാക്കുന്ന ലിക്വിഡാണ് ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഞാന് പാത്രം കഴുകി വൃത്തിയാക്കി വെക്കുന്നത് അത് നല്ല എണ്ണ മയം പോവും നല്ല തിളക്കം കിട്ടും എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ് ലിക്വിഡ് പിന്നെ എക്സോ എക്സോ എന്ന് പറയുന്ന എക്സോ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ട് സോപ്പുപയോഗിച്ചും നമുക്ക് കഴുകാം എക്സോ സോപ്പ് ഉണ്ട് പിന്നെ വിം ഉണ്ട് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്